ഹലോ അതെ അതെ ആ ഞങ്ങൾ നെല്ലിൻ്റെ വിത്ത് കൊ ആ കൊ കൊടുക്കുന്നുണ്ട് പറ്റുമല്ലോ ആ അതിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു കിൻ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ്റി ആ രണ്ടായിരത്തി രണ്ടായിരത്തി ശിഷ്ടമാണ് നമുക്ക് വരുന്നത് കുറച്ച് തരും നമുക്ക് ഇത്ര കെ കിലോ വെച്ചാണ് നമ്മൾ തരുന്നത് ആ ഒരു കൊലെ ഒരു ആ ഒരു കിലോയെ നമുക്ക് ഒരു നൂറ് രൂപയൊക്കെ വെച്ച് വേണമെങ്കിൽ കുറച്ച് തരാം ആ ആ അത് തരാം ഞങ്ങൾ ആ അത്ര വലിയ ആ കുത്തിയത് കാണത്തില്ല അത് നെല്ല് കുത്തിക്കണം കുത്തിച്ചാലേ കാണുള്ളൂ ആ അത് നിങ്ങൾ പറയണം വേണ്ടത് എത്രയാണെന്ന് ആ എടുക്കാം അത് എപ്പം വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ അത് ചെയ്ത് തരാം ഉം ആ എത്ര കിലോ വേണം അമ്പത് കിലോ ആ ആ അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം പറഞ്ഞാലേ ഞങ്ങൾക്കത് വെയിലത്തിട്ട് ഉണങ്ങി അത് കുത്തിച്ച് തരാനൊക്കത്തുള്ളൂ ആ ഓക്കെ ആ പച്ച നെല്ല് പച്ച നെല്ല് അത് കുത്തിച്ച് തരാം പച്ച നെല്ലിൻ്റെ അതും നേരത്തെ പറയണം നമുക്ക് വേയിലൊക്കെ ഇപ്പം കുറവല്ലേ അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞാലേ ഞങ്ങൾക്കത് വെയിലത്തിട്ട് ഉണങ്ങി അത് അല്ലെങ്കിലത് പൊളിഞ്ഞ് പോകും പച്ച അരി വെയിൽ കൊണ്ടില്ലെങ്കിൽ ഉം ഉം ഇരുപത്തഞ്ച് കിലോ മതിയോ ആ ആ ഇരുപത്തഞ്ച് കിലോ ആണെങ്കിൽ ഉം ആ പൊടിച്ച് വറുത്ത് മില്ലിൽ തരും പൊടിച്ച് വറുത്ത് ഞങ്ങൾക്ക് അത് വറുക്കാനുള്ള ഇതില്ല ഞങ്ങൾ മില്ലിൽ കൊടുത്താണ് ഇതെല്ലാം പ കുത്തിക്കുന്നതും നെല്ല് കുത്തിക്കുന്നതും അരി പൊടിപ്പിക്കുന്നതും അവിടെത്തന്നെ വെച്ച് വറുത്ത് കൊണ്ട് വരികയാണ്

അതെ ഓക്കെ